സമുദായത്തിൻ്റെ പിന്തുണ കർഷകർക്ക് നന്നായി ലഭിക്കുന്നുണ്ട് സമുദായം എപ്പോഴും കർഷകരോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയില് സമുദായങ്ങള് പ്രത്യേകിച്ച് ഞങ്ങളുടെ രൂപത ഇടുക്കി രൂപത അതുപോലെ തന്നെ എസ് എൻ ഡി പി എല്ലാ സമുദായങ്ങളും കർഷകർക്കൊപ്പം നിൽക്കുകയും കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ഒരു സാമുദായിക കൂട്ടായ്മയുടെ ഒരു മേഖലയാണ് ഞങ്ങളുടെ ഇടുക്കി ജില്ല എന്തായാലും സമുദായങ്ങള് പ്രത്യേകിച്ച് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സമുദായം റോമൻ കാത്തലിക്കാണ്

സമുദായത്തിൻ്റെ പിന്തുണയെന്ന് പറയുന്നത് എപ്പോഴും കർഷകർക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് കാരണം ഒരു മുന്നിൽ നിന്ന് നയിക്കുവാനും അത് വളരെ ഉത്തരവാദിത്തതോടുകൂടി ഉത്തരവാദിത്തബോധത്തോടുകൂടി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുകയെന്ന് പറയുന്നത് സമുദായങ്ങൾക്കേ സാധിക്കൂ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേഖലയിലുള്ള സമുദായ നേതാകന്മാര് അവരെപ്പോഴും വളരെ സൂക്ഷ്മതയോടും കാര്യക്ഷമതയോടും കൂടി പ്രവർത്തിക്കുന്നവരാണ് ഒരു കർഷകൻ്റെ ശരിയായ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് സമുദായ നേതാക്കന്മാരും സമുദായത്തെ നയിക്കുന്നവരും എല്ലാവരും പ്രത്യേകിച്ച് ഒരു സമുദായത്തിൻ്റെ ആ പൂർണ്ണതയെന്ന് പറയുന്നത് ഇടവകയാണ് ആ ഇടവകാജനത്തെ ഒരു ഇടവകയിലെ നാനാ ജാതി മതസ്ഥരെ ഒന്നിച്ചുനിർത്തി ഒന്നിപ്പിച്ചുനിർത്തി കർഷകരുടെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നതിനും അവർക്കനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നതിനും എക്കാലവും അവര് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ സത്യസന്ധമായ പ്രവർത്തനരീതി അവരിൽ ഉള്ളതുകൊണ്ട് കർഷകരെല്ലാവരും തന്നെ അവരിൽ അണിനിരക്കുന്നതിനും അവരോടൊപ്പം അണിനിരന്ന് പ്രവർത്തിക്കുന്നതിന് സന്നദ്ധരുമായിട്ടുണ്ട് ഈ രീതിയില് സമുദായ നേതാക്കന്മാരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല സമുദായ നേതാക്കന്മാരെ നമ്മുടെ മരിച്ചുപോയ നമ്മുടെ രൂപതയുടെ മുൻ അധ്യക്ഷൻ ആനക്കുഴിക്കാട്ടിൽ പിതാവ് അദ്ദേഹത്തെ മാത്രം ഒരു ഉദാഹരണമായെടുത്താൽ മതി കാരണം അദ്ദേഹം കർഷകർക്ക് വേണ്ടിയിട്ട് ഒത്തിരിയൊത്തിരി കാര്യങ്ങള് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങള് ഇവിടെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനശൈലി ഇപ്പോഴും എല്ലാവരും തന്നെ അനുകരിക്കുന്നുമുണ്ട് അപ്പോള് സമുദായത്തെ സംബന്ധിച്ചിടുത്തോളം സമുദായത്തിൻ്റെ പിന്തുണയും സമുദായത്തിൻ്റെ ആർജ്ജവത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും വളരെ വളരെ നല്ലതായിട്ട് വേണം കണക്കാക്കുവാനും അതനുസരിച്ച് ഞങ്ങള് സമുദായത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിന് കർഷകരായ ആളുകള് ഞാനുമൊരു കർഷകനാണ് ആ കർഷകനെന്ന നിലയിലും വളരെ ആത്മാര്ത്ഥമായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്